പഴയ സ്റ്റാമ്പുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് അത് പഴയ ലെറ്റെർസിൽ നിന്നും പഴയ ബില്ലുകളിൽ നിന്നും വരുന്ന നമുക്ക് വരുന്ന ഇതിനകത്തു നിന്നൊക്കെ നമ്മളത് കളക്ട് ചെയ്യാറുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കാറുണ്ട് കഴിവതും നമ്മൾ പഴയ ലെറ്ററുകളിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റാമ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നാണയങ്ങൾ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കല്ലുകളൊക്കെ നമ്മൾ ഓഡർ ചെയ്യാറുണ്ട് ഓഡർ ചെയ്ത് നമ്മൾ വാങ്ങിച്ചൊക്കെ നമ്മൾ ശേഖരിക്കാറുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ലേലത്തിൽ വാങ്ങിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും വാങ്ങിക്കുന്നുണ്ട് അത് ഒരുപാട് അങ്ങനെയുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടാണ് ലേലത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മളത് സൂക്ഷിച്ചു വെക്കാറുണ്ട് നല്ലൊരു ശേഖരണമാക്കി വെക്കാറുണ്ട് സ്റ്റാമ്പുകളാണെങ്കിൽ തന്നെ പഴയ ലെറ്ററുകളിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ മാസികകളിൽ നിന്നോ അങ്ങനെയുള്ള സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ശേഖരിച്ച് വെക്കാറുണ്ട് നാണയങ്ങളാണെങ്കിൽ തന്നെ കല്ലുകളാണെങ്കിൽ തന്നെ നമ്മൾ കഴിവതും കിട്ടുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ സൂക്ഷിക്കും അതുപോലെതന്നെ മറ്റുള്ളവരുടെ അടുത്തു നിന്ന് ഇത് പറയും നമ്മൾ ഇതുപോലെ ശേഖരിക്കുന്നുണ്ട് നമുക്കത് അവർക്കത് ഉപയോഗമില്ലെങ്കിൽ അവരത് വെറുതെ കളയുകയാണെങ്കിൽ നമുക്കത് തരാമോയെന്ന് ചോദിച്ച് നമ്മളത് വാങ്ങിച്ച് വെക്കാറുണ്ട് അതുപോലെ ഓൺലൈനിൽ നിന്നാണെങ്കിലും നമ്മളത് അങ്ങനെ കിട്ടാത്ത ഇതാണെങ്കിൽ നമ്മളത് വാങ്ങി കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ ശേഖരണം നമ്മൾ ശേഖരിക്കുന്നുണ്ട് ഇപ്പം സ്റ്റാമ്പുകളായിട്ടും നാണയങ്ങളായിട്ടും കല്ലുകൾ ആയിട്ടൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ട് അത് പിന്നെ ഒരുകാലത്ത് നമുക്ക് അത് ഉപകരിക്കുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ശേഖരണം ഉണ്ടാക്കിയേക്കുന്നത് അതിനോട് ഒരുമാതിരി യോജിക്കുന്നു